ഞാൻ ടീ വിയിലെ പ്രോഗ്രാമാണ് കൂടുതലും കാണുന്നത് എനിക്കേറ്റോം ഇഷ്ടപ്പെട്ട ചാനലുകൾ ഫ്ലവേഴ്സ് സി കേരളം പിന്നെ ന്യൂസ് ചാനല് കാണും അതിൽ ഫ്ലവേഴ്സിനകത്ത് എനിക്കേറ്റോം ഇഷ്ടപ്പെട്ട പരിപാടി പാട്ടാണ് കൊച്ചു പിള്ളേരുടെ പാട്ട് അത് ഞാൻ കൂടുതലും കാണുന്നതാണ് ഏറ്റോം കുഞ്ഞ് പിള്ളേരുടെ മനോഹരമായ പാട്ട് അവർ പാടുന്ന പാട്ടുകൾ നല്ല പാട്ടുകളാണ് വലിയവരെക്കൊണ്ടു പോലും പാടാൻ പറ്റാത്ത പാട്ടുകളാണ് അവർ പാടുന്നത് അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുക്കിംഗ് ടി വിയിൽ കാണിക്കുന്ന കുക്കിംഗ് കാണാറുണ്ട് കുക്കിംഗ് നല്ല പോലെ കാണാറുണ്ട് അത് അമൃതാ ടി വിക്കകത്ത് ആനീസ് കിച്ചൻ അത് കൂടുതലും കാണും പിന്നീട് ന്യൂസ് മനോരമ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വന്റി ഫോറ് ഇതൊക്കെ കാണും പിന്നെ മൂവീസ് മൂവീസും കാണും സൂര്യ ഏഷ്യാനെറ്റ് മൂവി സൂര്യ മൂവീസ് ഇതെല്ലാം കാണും കൂടുതലും ടി വിയാണ് കാണുന്നത് ടീ വീടെ പ്രോഗ്രാമാണ് കൂടുതലും കാണുന്നത്